ഇപ്പോഴുള്ള യുവതലമുറ തൊഴിലായി കൃഷിയെ ഒരു കാരണവശാലും അവര് കാണുന്നില്ല കാരണം ഒരു തൊഴില് എന്നും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മറ്റു ജോലികളോ ആണ് അവർക്ക് കൂടുതലിഷ്ടം അവരുടെ ജീവിത രീതിയില് അവർക്ക് കൃഷി ചെയ്ത് കൃഷിയെ ഒരു തൊഴിലാക്കാൻ ആർക്കും താല്പര്യമില്ല ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പോൾ പലരും വിദേശത്തേക്കാണ് പോകാൻ നോക്കുന്നത് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലൊരു ചെറിയ ഒരു ജോലി എന്തെങ്കിലും പഠിച്ച് അവര് വിദേശത്ത് പോവാനാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാർ കൃഷിയിലുപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന പുതിയ രീതികളെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ മെഷീൻ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത് കാടുവെട്ടുന്ന യന്ത്രം അതുപോലെ ഉഴുവുന്ന യന്ത്രം അങ്ങനെയുള്ളതാണ് കൃഷി ചെയ്യാറേയില്ല ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും അവർ മെഷീനുകൾ ഉപയോഗിച്ചുകള് ചെയ്യാനാണ് അവർക്ക് കൂടുതലും താൽപര്യം കാരണം ജോലി ചെയ്യുന്നതില് ഏറ്റവും എല്ലുപ്പമുള്ളത് രീതിയാണോ അത് ഉപയോഗിച്ച് കൃഷി ഇറക്കാനും കൃഷി വിളവെടുക്കാനും എല്ലാത്തിനും കൂടുതലും അവര് ഉപയോഗിക്കുന്നത് യന്ത്രങ്ങളുപയോഗിച്ച് മെഷീനുകളുപയോഗിച്ച് ഓരോ യന്ത്രങ്ങളും ഇത് ഉഴുവാനുള്ള യന്ത്രം അതുപോലെ തന്നെ കാട് വെട്ടാനുള്ള യന്ത്രം കിളക്കാനുള്ള യന്ത്രം ഉഴുത് മറിക്കാനുള്ള യന്ത്രം യന്ത്രം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും യന്ത്രങ്ങളുപയോഗിച്ച് ചെയ്യുന്നതാണ് അവർക്കടെ പുതിയ രീതികള് പുതിയ പുതിയ രീതികളിൽ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ തലമുറ കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ കൃഷിയെന്ന് പറയുന്നത് കൂടുതല്പേരും കൂട്ടായി കൃഷി ചെയ്യുന്നു ഒന്നെങ്കിൽ സംഘമായി കൃഷി ചെയ്യുന്നു വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നു വാഴ അതുപോലെ പാവല് പയറ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത് കൂട്ടായാണ് കൃഷി ചെയ്യുന്നത് അവര് അത് കൂടുതലും യന്ത്രങ്ങളുപയോഗിച്ച് കൃഷി ചെയ്യുന്നു യന്ത്രങ്ങളാണ് അവർക്ക് കൂടുതലും ഇഷ്ടം ഒരു തൊഴിലായി ഒന്നും അവർക്ക് കൊണ്ടുനടക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് മാസ ശമ്പളം കിട്ടുന്ന എന്തെങ്കിലൊരു ജോലി ചെയ്യാനാണ് എല്ലാവർക്കും താൽപര്യം ഇപ്പം കൃഷിയോട് എല്ലാവർക്കും മടുപ്പാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് തന്നെ ഇപ്പോളുള്ള തലമുറ കൂടി കൃഷി ചെയ്യും അത് കഴിയുമ്പോൾ പിന്നെ ആരും തന്നെ കൃഷി ചെയ്യനുണ്ടാവില്ല അതിനോട് ആർക്കും തന്നെ താല്പര്യവുമില്ല ഏത് സമയവും ജോലി ചെയ്ത് അതിനായി ശമ്പളം മേടിക്കുന്നതാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടം